ജനിച്ചുവീണ കുഞ്ഞിന് ഓരോ മതത്തിനും ഓരോ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് നമ്മുടെ സമൂഹത്തില് നടക്കുന്നത് ഹിന്ദുക്കള്ക്കായിക്കോട്ടെ മുസ്ലിങ്ങള്ക്കായിക്കോട്ടെ ക്രിസ്റ്റ്യന്സിനായിക്കോട്ടെ അവര്ക്ക് മൂന്ന് മതക്കാര്ക്കും മൂന്ന് രീതിയിലാണ് അവരുടെ ഒരോ ആചാരങ്ങള് കുഞ്ഞ് ജനിച്ചയുടനെ എന്തൊക്കെ ചെയ്യണമെന്നും മൂന്നു മതത്തിലും പല തരത്തിലാണ് ഹിന്ദുക്കള്ക്ക് കുഞ്ഞു ജനിച്ചയുടനെ അവര്ക്ക് തേനും വയമ്പും കൊടുക്കലും അവര്ക്ക് പിന്നെ ഇരുപത്തിയേഴാമത്തെ വയസ്സില് ആണ്കുട്ടിയാണെങ്കില് അവര്ക്ക് ഇരുപത്തിയേഴാമത്തെ വയസ്സില് ആണ്കുട്ടികള്ക്ക് ചരടുകെട്ടും പെണ്കുട്ടികളാണെങ്കില് ഇരുപത്തിയെട്ടാമത്തെ വയസ്സില് നൂലുകെട്ടുമാണുള്ളത് അതുപോലെത്തന്നെ അവര്ക്കൊരു പ്രായമാകുമ്പോഴേക്കും അതായത് അവര്ക്കൊരു വയസ്സാകുന്നതിനൊക്കെ ഒരു വയസ്സാകുമ്പോള് അവരുടെ തല മുണ്ഡനം ചെയ്ത് അത് അമ്പലങ്ങളില് പോയി അതെന്തെങ്കിലും നേര്ച്ചാ കാര്യങ്ങള് എന്തേലും ഉണ്ടെങ്കില് അത് മുണ്ഡനം ചെയ്താണ് മുണ്ഡനം ചെയ്ത് അമ്പലങ്ങള്ക്ക് മുടി മൊട്ടയടിക്കുകയും ചെയ്യും അതുപോലെത്തന്നെ അതുപോല തന്നെ അതുപോല തന്നെ അതുപോല തന്നെ ആറാമത്തെ വയസ്സില് കുഞ്ഞുങ്ങള്ക്ക് അതായത് ആറാമത്തെ വയസ്സില് പെണ്കുട്ടികള്ക്ക് ചോറ് കൊടുക്കുകയും ആറാമത്തെ വയസ്സില് പെണ്കുട്ടികള്ക്ക് ആറാമത്തെ വയസ്സില് പെണ്കുട്ടികള്ക്ക് ചോറൂണ് നടത്തുകയും ആണ്കുട്ടികള്ക്ക് അഞ്ചാമത്തെ മാസത്തില് ചോറൂണ് നടത്തുകയും ചെയ്യും അതുപോലെത്തന്നെ ഈ തല മുണ്ഡനം ചെയ്യുന്ന കാര്യം ഞാന് പറഞ്ഞല്ലോ അപ്പോള് മുണ്ഡനം ചെയ്യുമ്പോള് ഇപ്പം പണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ഇപ്പോള് ഇന്ഫെക്ഷനും കാര്യങ്ങളുമൊക്കെക്കൊണ്ട് ഇപ്പോള് അങ്ങനെ മുണ്ഡനം ചെയ്യുകയില്ല അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങള് ജനിച്ചയുടനെ അവര്ക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടായെന്ന് ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ആള്ക്കാര്ക്ക് ഭയങ്കരം ക്രെഡിറ്റബിള് ആയിട്ടാണ് അവര് ചെയ്യുന്നത് ഇപ്പം അത് എല്ലാം നല്ല രീതിയില് തന്നെയാണ് ചെയ്യുന്നത് അത് എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യേണ്ടായെന്നും ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള മാതാപിതാക്കള്ക്കറിയാം പണ്ടുള്ളവര് എന്താണ് ചെയ്തത് പണ്ടുള്ളവര് ഇപ്പോഴത്തെ കാലവും പണ്ടുള്ള കാലവും തമ്മില് ഒത്തിരി ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളില് നിന്നുകൊണ്ടുതന്നെയാണ് നമ്മളിപ്പോള് നടക്കുന്നത് നമ്മളുടെ ജീവിതത്തില്ത്തന്നെ ഒരു കുഞ്ഞു ജനിക്കുമ്പോള് നമ്മള് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മളിപ്പോള് അതായത് കുഞ്ഞ് ജനിച്ച് കുഞ്ഞ് ഒരമ്മയുടെ വയറ്റില് കുഞ്ഞുള്ള സമയത്ത് തന്നെ നമ്മളെന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടായെന്ന് നമ്മള് പ്ലാന്ഡ് ആണ് എന്തു ചെയ്യണം എന്ത് ചെയ്യേണ്ടാ ഇപ്പോള് എന്ത് ഫുഡ് അതായത് ഫുഡ് വരെയും ഏത് സ്കൂളില് ചേര്ക്കണം എന്നുവരെ നമ്മള് നമ്മുടെ ഒരമ്മയുടെ വയറ്റില് കുഞ്ഞു കിടക്കുമ്പോള് തന്നെ നമ്മളത് ചെയ്യും അതുപോലെത്തന്നെ കുഞ്ഞ് ജനിച്ചയുടനെ അവര്ക്ക് തേനും വയമ്പും കൊടുക്കുകയെന്ന് പറയുന്നൊരു ആചാരമുണ്ട് അതായത് കുഞ്ഞിന്റെ നാക്ക് എന്താണ് നല്ലവണ്ണം കൊത്തലൊന്നും വരാതെ അതായത് സംസാരിക്കാന് വിക്കൊന്നും വരാതെ അവര്ക്ക് നല്ല രീതിയില് അവര്ക്ക് പറയാന് വേണ്ടിയാണ് ഇതുള്ളത് അതുപോലെത്തന്നെ കുഞ്ഞിന്റെ തല മൊട്ടയടിക്കുന്നത് അത് പണ്ടുതൊട്ടേ അതായത് കുഞ്ഞ് പണ്ടുതൊട്ടേയുള്ള ആചാരമാണ് കുഞ്ഞുങ്ങള്ക്ക് മൊട്ടയടിക്കുകയെന്ന് പറയുന്നത് അത് നല്ലയൊരു നല്ലയൊരു കാര്യംതന്നെയാണ് നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് നല്ലത് അതുപോലെത്തന്നെ ചോറൂണ് നടത്തുക കുഞ്ഞിന് എന്തെങ്കിലും ആ പിന്നെ ആറാം മാസം കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങള്ക്ക് ഫുഡ് അത് ഏതുതരത്തിലുള്ള ഫുഡ് കൊടുക്കണം ഏതുതരത്തില് ഏത് കൊടുക്കണം ഏത് ഇങ്ങനത്തെ പ്രോട്ടീനായിട്ടുള്ള കാര്യങ്ങള് കൊടുക്കണം എന്നതൊക്കെ തന്നെയാണ് പറയുന്നത് അതുപോലെത്തന്നെ ഇപ്പോള് മുസ്ലീങ്ങളായിക്കോട്ടെ അവര്ക്ക് അവര്ക്കും ഇതുപോലെത്തന്നെ നാല്പ്പതാം എന്തോ നാല്പ്പതാമത്തെ ദിവസം അവര്ക്ക് തല മൊട്ടയടിക്കുക അതുപോലെത്തന്നെ ആറാം മാസത്തില് അവര്ക്ക് ചോറ് കഴിക്കുക അത് ഈ മൂന്ന് കാര്യങ്ങളും മൂന്ന് മതത്തിലും മൂന്ന് തരത്തിലാണ് കുഞ്ഞുങ്ങളെ അവര് പരിപാലിക്കുകയും ആചാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് അത് വ്യത്യസ്ത തരമായിട്ടുള്ള ആചാരമാണ് അത് ഞാന് പറഞ്ഞില്ലെ ഹിന്ദുക്കളില് തന്നെ എന്താണ് ആറാം മാസമാകുമ്പോള് ആണ്കുട്ടികളാണെങ്കില് ചോറുകൊടുക്കും ആണ്കുട്ടികളാണെങ്കില് ആണ്കുട്ടികളാണെങ്കില് അഞ്ചാംമാസം അതായത് ആറ് മാസം തുടങ്ങുന്നതിന് മുന്നേയായിട്ട് അഞ്ചാം മാസത്തിലായിരിക്കും അവര്ക്ക് ഫുഡ് കൊടുക്കുന്നത് ചോറൂണ് നടത്തുന്നത് അതേതെങ്കിലും അമ്പലങ്ങളില് വെച്ചായിരിക്കും നടത്തുന്നത് അതുപോലെത്തന്നെ പിന്നെ പെണ്കുട്ടികള്ക്കാണെങ്കില് ആറാം മാസമാകുമ്പോള് ആറാം മാസമാകുമ്പോള് ഏതെങ്കിലും ഇതുപോലെത്തന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തില് കൊണ്ടുപോയി അവര്ക്ക് ചോറൂണിനായിട്ടുള്ള പടച്ചോറും അതായത് വെള്ളച്ചോറും കുറച്ച് പായസം അങ്ങനെ എരിവും പുളിയുമൊക്കെവെച്ചാണ് അവര്ക്ക് ചോറ് കൊടുക്കുന്നത് പിന്നെ അവരുടെ തല മൊട്ടയടിക്കുന്നത്